മൃഗങ്ങളെ വളർത്തിയിട്ട് പശുവിനെ പശുവിനെ തന്നെ വളർത്തി അതിനെ പാൽ എടുത്ത് പാൽ വിൽക്കുന്നു അതിനെ ഒറ ഒഴിക്കുന്നു അത് നെയ്യ് ഒറയെടുത്തു നെയ്യാക്കുന്നു മോര് വയ്ക്കുന്നു അങ്ങനെ ഓരോ ഓരോ കാര്യത്തിനായിട്ട് ഉപയോഗിച്ചു അതിൽ നിന്നുമുണ്ട് പൈസ സമ്പാദിക്കുന്നുമുണ്ട് ആ മൃഗങ്ങളെ അത് മൃഗങ്ങളെ വളർത്തി വലുതാക്കി കുറേ വയ്യാതെ വരുന്ന സമയത്ത് അല്ലേ ഇതിൽ നിന്നും ആദായം കുറയുന്ന സമയത്താണ് നമ്മൾ കശാപ്പ് ചെയ്യാൻ ഈ മൃഗത്തെ കൊടുക്കുന്നത് കശാപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് അവർ അറുത്ത് അതിൻ്റെ തോൽ വേറെ മാംസം വേറെ അങ്ങനെയാണ് അറപ്പുകാർ പണം സമ്പാദിക്കുന്നത് അത് വേണ്ടിയ രൂപത്തിൽ അവർ അതിൻ്റെ തോര് തോല് കൊടുക്കുന്നുണ്ട് മാംസം വിൽക്കുന്നുണ്ട് അങ്ങനെ മുഴുവൻ പൈസയും അവർ ഉണ്ടാക്കുന്നുണ്ട്